എപ്പോഴും പണ്ടത്തെ സാംസ്കാരിക പാരമ്പര്യം എങ്ങനെയാണ് കൊണ്ടു പോവുക എന്ന് പറഞ്ഞാൽ ഉത്സവങ്ങൾക്കാണെന്ന് പറഞ്ഞാൽ ഒരു മാസം മുന്നേ ഞങ്ങളെല്ലാവരും ഇവിടെ വ്രതമൊക്കെ എടുക്കും വ്രതം എടുത്ത് ആ ഉത്സവം തുടങ്ങുന്ന ഒരു മാസം മുന്നെ വ്രതം എടുക്കുന്ന ദിവസം എല്ലാ വീട്ടിലും എഴുന്നള്ളപ്പുണ്ടാകും ആന എഴുന്നള്ളപ്പുണ്ടാകും എല്ലാ വീട്ടിലും എല്ലാ ആൾക്കാരും ആനയ്ക്ക് പാ പഴവും അതൊക്കെ കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞ് എല്ലാവടെയും കഴിഞ്ഞതിന് ശേഷം അത് നേരെ അമ്പലത്തിൽ പോയിട്ട് അവടെ അവിടെ പൂജയൊക്കെ കഴിഞ്ഞ് അത് വലം വച്ച് പിന്നെ അന്ന് തൊട്ട് ഉത്സവം വരെ വ്രതം ആയിരിക്കും പിന്നെ ആ ദിവസം തന്നെ ആയിരിക്കും ഉത്സവത്തിന് കോടിയേറ്റം നടത്തുന്നത് വിവാഹങ്ങൾക്കാണെന്ന് പറഞ്ഞാ പണ്ട് മുതലേ എന്താ ആചാരം എന്ന് ചോദിച്ച് വന്നാ പണ്ടത്തെ ആൾക്കാര് തലമുറയായിട്ട് കൈമാറി വരുന്ന സ്വർണങ്ങൾ ഇണ്ടാവും എന്ന് പറഞ്ഞാ അമ്മാ അമ്മമ്മ യൂസ് ചെയ്ത അമ്മ യൂസെയ്ത് ഇപ്പ യൂസ് ചെയ്യുക അതുപോലെ തന്നെ അമ്മ യൂസ് ചെയ്തത് ഞാൻ യൂസ് ചെയ്യുക അങ്ങനത്തെ പാരമ്പര്യം ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നോർമലീ എല്ലാവരും പങ്കെടുക്കും എല്ലാ ഫംഗ്ഷൻ എല്ലാത്തിലും പങ്കെടുത്തിട്ട് തന്നെയാണ് ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നത് പണ്ടുമുതലേയുള്ള ആചാരങ്ങൾ ആണിതൊക്കെ ഉത്സവത്തിനായാലും കല്യാണത്തിനായാലും പണ്ട് മുതലേ ആചാരങ്ങൾ ഉള്ളത് പിന്നെ കല്യാണത്തിന് പറഞ്ഞാൽ നെല്ല് നെല്ല് കൂട്ടിയിട്ട് ഞമ്മൾ അതില് വാഴ തെങ്ങിൻ്റെ ഒരു സാധനം വയ്ക്കും അത് വെച്ച് എല്ലാവടെയും പൂജിച്ച് കല്യാണത്തിന് ആയാലും എല്ലാവടെയും പൂജിച്ചൊക്കെയാണ് തൊടങ്ങുന്നതും എല്ലാം ചെയ്യുന്നതും ഇതാണ് പാരമ്പര്യമായിട്ട് കാത്തു സൂക്ഷിക്കുന്നത്